ഹലോ ആ ഏട്ടാ ഒരു ഫുഡ് ഡെലിവെറിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ടോക്കൺ നമ്പർ ഇരുപത് അത് ഓർഡർ സമയത്തിന് എത്തിയില്ല ലെയ്റ്റാവുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അഥവാ ഇനി നല്ലോണം ലെയ്റ്റാവുകയാണെങ്കിൽ ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരും കാരണം ഇപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതലായി ഓർഡർ ചെയ്തിട്ട് ഇനിയും സാധനം എത്തിയിട്ടില്ല അത് എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് വല്ലാണ്ട് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് വേണ്ട നമ്മൾ വേറെ നോക്കിക്കോളാം ഒരുപാട് വൈകുകയാണെങ്കിൽ നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്യുകതന്നെ വേണ്ടി വരും ഇതിപ്പോൾ അര മണിക്കൂർ ഒരു മണിക്കൂറിൽ കൂടുതൽ ഒരു ഒന്നര മണിക്കൂറോളമായി നമ്മൾ ഓർഡർ ചെയ്തിട്ട് വെയ്റ്റ് ചെയ്തിരിക്കുണു